എന്റെ മുത്തച്ഛൻ എന്റെ ചെറുപ്പകാലം മുതലെ ഒരു കൃഷി ചെയ്യുന്ന ആളായിരുന്നു മുത്തശ്ശന്റെ ആ കൃഷി രീതികള് എനിക്ക് ഒരു തോട്ടകൃഷി തുടങ്ങാൻ എന്നെ പ്രചോദിപ്പിച്ചു അതായത് നല്ല രീതിയില് കൃഷിയിടങ്ങൾ കണ്ടെത്തി നല്ലനല്ല കൃഷികൾ ചെയ്യാനായിട്ട് മുത്തശ്ശൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു പ്രചോദനമാണ് എന്നെ ഇപ്പോൾ തോട്ടകൃഷി ചെയ്യാൻ പ്രചോദിപ്പിച്ചത്